ഞാൻ പുത്തരി വി എച് എസ് എസിന്ന് ആശയാണ് സംസാരിക്കുന്നത് വീട്ടിലാരൊക്കെയുണ്ട് നിങ്ങൾ ഈ പ്രാവശ്യത്തെ വാക്സിനക്കെ എടുത്തായിരുന്നോ പിള്ളേർക്ക് ആ അമ്മക്ക് വാക്സിൻ ഉണ്ടോ അമ്മക്ക് വാക്സിൻ ഉണ്ടായിരുന്നോ ആ കഴിഞ്ഞ

കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസത്തെ അംഗനവാടീലെ വെര മരുന്നൊക്കെ കൊടുത്തായിരുന്നോ നിങ്ങളേത് വി എച് വി എച് എസ് എസിലാണ് പോകുന്നത് ആ പുത്തരി അതാറുമാസത്തിന് ഇടവിട്ടാണ് കൊടുക്കേണ്ടത് വൈറ്റമിൻ എ അത് പനിയുള്ളപ്പോഴൊന്നും കൊടുക്കരുത് പനിയില്ലാത്തപ്പോൾ വേണം അത് കൊടുക്കാൻ ആ ആ മൂന്നു വയസു വരെയുള്ള എല്ലാ ഇഞ്ചക്ഷനും എടുത്തായിരുന്നോ പിള്ളേർക്ക് ആ ഇനി അഞ്ച് ആ

ഇടവിട്ട് ഈ പനിയൊക്കെ വരുമ്പോഴേ ഏതാശുപത്രീലാണ് പോകുന്നത് അവനീ സ്കിൻ അലർജിയൊക്കെയുണ്ടോ

അമ്മ അമ്മക്കെത്ര വയസുണ്ട് ബി പി ഷുഗർ എന്തേലുമുണ്ടോ

നടുവേദന തലവേദന അങ്ങനെ വല്ലോം ഉണ്ടോ

ഹസ്ബൻഡിന് വല്ല കുഴപ്പമുണ്ടോ

ഹ് ലക്ഷ്മി കൊറോണ വാക്സിനക്കെ എടുത്തതാണോ അതിൻറ്റെ പിന്നെ എടുത്തിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നോ വീട്ടിലാർക്കെങ്കിലും എന്തേലും പ്രോബ്ലെംസ് ഉണ്ടായിരുന്നോ ആ എന്നാൽ ശരി ലക്ഷ്മി താങ്ക് യൂ